ആരാണ് ആ ആ അതെ അതെ ആവശ്യമുണ്ട് ഇപ്പോൾ വിളിക്കുന്ന ആളുടെ പേരെന്താണ് റീന എവിടുന്ന് സ്ഥലം എവിടെയാണ് മ്മ് ഇത് നമ്മൾ ഫില്ഗിരി എന്ന് പറയും ഫില്ഗിരി

ജോലി നമുക്ക് ഫുള് ടൈം ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കാര്യം ഞങ്ങൾ വര്ക്ക് ചെയ്യുന്നവരാണ് അപ്പം അതിന്റെ കൂടെ എന്തോ ലീവ് മാസത്തിൽ അഞ്ച് ദിവസത്തെ ലീവുണ്ട്

പേമെന്റ് എന്നാ മന്ത്ലി പതിനയ്യായിരം രൂപ പതിനെ നിങ്ങള്ക്ക് പ്രത്യേകിച്ച് ജോലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കുട്ടികളെ നോക്കണം ഒന്ന് പിന്നെ അത്യാവശ്യം അടുക്കളയിലുള്ള അത്യാവശ്യം പാചകങ്ങൾ പിന്നെ തൂപ്പ് തുടപ്പ് ആ വക കാര്യങ്ങളൊക്കെ ഉള്ളൂ

ഇല്ല നമ്മൾ ആ അങ്ങനെ നമുക്കൊന്നാലോചിക്കാം അതിനെപ്പറ്റി ആ ഹ ഹ ശമ്പളം ഈ ഫിക്സെഡ് റേറ്റാണ് പറഞ്ഞത് മ്മ് ഹമ്മ് ഹമ്മ് ഹമ്മ് അപ്പം ആ അക്കൗണ്ടിലിടാം അക്കൗണ്ടിലിടാം നിങ്ങൾക്കൗണ്ടിലിടാനാണോ താല്പര്യം ആ അക്കൗണ്ടിലിടാം അക്കൗണ്ടിലിടാം പിന്നെ ആഹാരമൊക്കെ വെക്കാന് എങ്ങനെയാ ഒന്നും കുഴപ്പമില്ലല്ലോ ഇല്ല അത്ര ഓവര് ലോഡൊന്നും ആവത്തില്ല രാവിലത്തേത് ഞങ്ങൾ പിന്നെ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും നമ്മളുണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകാറ് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും വേറെ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ രണ്ട് കുട്ടികള് മാത്രമേ ഉള്ളൂ അവരെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് അവര്ക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടുള്ള ലഞ്ചും പിന്നെ വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ അവര്ക്കെന്തെങ്കിലും സ്നേക്ക്സ് അങ്ങന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ആ പിന്നെ വീടൊന്ന് വൃത്തിയാക്കണം അത്രയും

ഈ ഒന്ന് ഈ വരുന്ന ഒന്നാം തീയ്യതി മുതല് ജോയിന് ചെയ്തോളൂ കേട്ടോ ഒന്നാം ആ ഒന്നാം തീയ്യതി മുതൽ ജോയിന് ചെയ്തോളൂ പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് ആ മക്കൾ പഠിക്കുകയാണോ അതോ ആ ഹാ ഹാ ഹാ പിന്നെ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ